ഞാനെ ഒരു പരാതി പറയാൻ വിളിച്ചെ പരാതി പറയാണെ കാരണമുണ്ടല്ലൊ കുറേ വർഷങ്ങളായിട്ടെൻ്റെ ഡിജിലോക്കറിൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡൊന്നു തന്നാൽ അപ്പോൾ എനിക്കതൊന്നു മാറ്റണമെന്നുണ്ട് കാരണം ഞാൻ ആ പാസ്വേഡിങ്ങനെ മറന്നു പോയി അതു പണ്ടിട്ടതാണ് അപ്പോൾ എനിക്കതു മറന്നുപോകുക കാരണം ഒരു ഭയങ്കര വലിയ ഒരു സംഖ്യ ഇട്ടിരിക്കുന്നത് അതൊന്ന് ചെറുതാക്കിയിട്ട് ചെറിയ സംഖ്യ ആക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് അപ്പതൊന്ന് മാറ്റാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞു അപ്പം സൈബർ ലോകത്തല്ലെ താമസിക്കുന്നത് അപ്പോൾ പാസ്വേഡൊക്കെ മറ്റുള്ളവരുടെ കണ്ടു പിടിക്കാനെളുപ്പമാണല്ലോ അപ്പം ഇച്ചിരി ഇച്ചിരി ഡിഫ്രണ്ടായിട്ടുള്ള പാസ്സ്വേഡാണ് ഞാൻ ആഗ്രഹിക്കുന്നത്